എനിക്ക് താൽപര്യം ഫിക്ഷനോടാണ് കാരണം ഫിക്ഷൻന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം എന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഒരു നമ്മളൊരു പിടിച്ച് നിർത്തുന്നില്ല നമ്മളെ തുറന്ന് വിട്ടപോലെയാണ് നമുക്ക് എന്ത് വേണേലും പറയാം എവിടെ വേണേലും പറയാം എന്ത് വേണേലും ചെയ്യാം നമ്മളുടേതായ ഒരു ഭൂമി തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അതിപ്പോൾ ഭാവീലാവും ഭുതകാലത്തിലാവും എവിടെ വേണേലും ആവാം എൻ്റെ കവിത എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും നമ്മളെഴുതുന്ന ഒരു ബുക്കിൽ എന്ത് വേണേലും ചെയ്യാം ഫിക്ഷനിൽ അത് നടന്നതാവണംന്നില്ലാ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും നമ്മളുടേതായിട്ട് സ്വന്തമായിട്ട് ഒരു ലോകം അവിടെ ജീവിക്കുന്ന ആൾക്കാർ അവിടുത്തെ മൃഗം ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനെ ഒരാളും ഇതാക്കാൻ പറ്റില്ല അത്രയും വലിയൊരു ഭൂമി തന്നെ നമുക്കുണ്ടാക്കാം സ്വന്തമായിട്ടൊരു സ്റ്റാറും ഇതൊക്കെ നമുക്കുണ്ടാക്കാൻ പറ്റും അതിന് ഒരു പരിമിതിയില്ല നമ്മുടെ ഇമാജിനേഷനാണ് അതില് പരിമിതി വരുന്നത് അപ്പോൾ അത്രയും വലിയ സ്ഥലം നമുക്കിണ്ടാക്കാൻ പറ്റും അത്രയും വലിയ ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്കൊരു പരിമിതിയില്ല എത്ര ടൈപ് ആൾക്കാർ എങ്ങനത്തെ ആൾക്കാർ എങ്ങനത്തെ മൃഗങ്ങൾ എങ്ങനത്തെ പുഴകൾ എങ്ങനത്തെ മലകൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ നമുക്കറിയാൻ പറ്റും എത്ര വലുതാണെന്നോ എത്ര ചെറുതാണെന്നോ എങ്ങനത്തെ ആൾക്കാരാണ് അവിടത്തെ ജീവിത രീതി എങ്ങനെയാണ് അതൊക്കെ നമുക്കാക്കാൻ പറ്റും ഭാവിയിലെ കാര്യങ്ങളും ഭൂതകാലത്തെ കാര്യങ്ങളും ഇനിയിപ്പോൾ മനുഷ്യന്മാരില്ലാത്ത ഒരു നാടും മനുഷ്യന്മാരില്ലാത്തതും മൃഗങ്ങൾ മാത്രമുണ്ടാകുന്ന സ്ഥലം എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും അത് നമ്മളെ ഒരു പരിമിതി വിട്ട് തന്നിരിക്കാണ് അങ്ങനത്തെ ഒരു ഇതാണ് എന്ത് വേണേലും ചെയ്യാം നമ്മുടേതായ ഒരു ഭൂമിയും നമ്മുടേതായ ഒരു നാടും നമ്മുടേതായ വീടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ അ നാ അ ഭൂമിയിൽ അങ്ങനത്തെ ഒരു ഇതിൽ എന്തൊക്കെ വേണമെന്നും എവിടെ എന്തൊക്കെ ചെയ്യണംന്ന് ഒക്കെ നമുക്കറിയാം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് ഓരൾക്കും പറയാൻ പറ്റില്ല അതിൽ ഭാവീലാവും നമ്മൾ ചിലപ്പോൾ പറക്കുന്ന കാറുകളും പറക്കുന്ന ബ്രിൽഡിങ്ങും ഒക്കെ ഉണ്ടാവായിരിക്കും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊരാൾക്കും വേണ്ടാ എന്ന് പറയാൻ പറ്റില്ല അവിടുത്തെ ഇങ്ങനത്തെ മനുഷ്യന്മാരാണ് ചിലപ്പോൾ എല്ലാവർക്കും എന്തിനും ശക്തിയുള്ള ഭൂമിയാവും ചിലപ്പോൾ അവിടത്തെ ആൾക്കാർക്ക് പറക്കാൻ പറ്റുന്ന ആൾക്കാരാവാം ചാടാൻ പറ്റുന്ന ആൾക്കാരാവാം ചിലപ്പോൾ അവർക്ക് ഭാവിയിൽ ഭക്ഷണം വേണ്ടി വരില്ല അങ്ങനത്തെ ആളുകളാവാം എങ്ങനെ വേണേലും ആവാം പിന്നെ അ നാട് എങ്ങനെ വേണേലും വേർതിരിക്കാം എങ്ങനെ വേണേലും ഇതാക്കാം അവിടെ ചിലപ്പോൾ പറക്കുന്ന മൃഗങ്ങളുണ്ടാവായിരിക്കാം പക്ഷികൾ ഇപ്പോൾ ഡയിനോസറുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫിക്ഷൻ നോവലെനിക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെതായ ഇഷ്ട്ടത്തിന് നമുക്കെന്തു വേണേലും ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഇതിൽ ഇപ്പോൾ ഓരൾക്കും ഒരു നമ്മളെ വേണ്ടാന്ന് പറയാൻ പറ്റില്ല